പാടാനായി ദിവസത്തിൽ ഞാൻ ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കാറുണ്ട് ചിലപ്പോൾ അതൊരു മണിക്കൂറാകും അത് എൻ്റെ സമയം അനുസരിച്ചിരിക്കും ക്ലാസ് വേറെ ക്ലാസുകളൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഒരു മണിക്കൂർ പാടും ഇല്ലാത്തപ്പോൾ അരമണിക്കൂർ ദിവസവും പാടാറുണ്ട് ഞാൻ എങ്ങനെയാണ് പാട്ട് പഠിക്കുന്നത് ഓൺലൈൻ ആയിട്ടായിരിക്കും ഞാൻ കൂടുതലും പാട്ടുകൾ പഠിക്കാൻ നോക്കുന്നത് കാരണം ഞാൻ ഇപ്പോൾ ഓൺലൈൻ ആയിട്ടാണ് ക കർണാടക സംഗീതം പഠിക്കുന്നത് അപ്പോൾ എനിക്ക് ഓൺലൈൻ ആയിരിക്കും കുറച്ചൂടെ സ്യൂട്ടബിൾ ആ ഞാൻ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാറുണ്ട് ഇന്ന പാട്ട് എങ്ങനെ പാടാം എൻ്റെ പിച്ചിന് അനുസരിച്ചായിരിക്കില്ല ഒറിജിനൽ പാട്ടിൻ്റെ പിച്ച് അപ്പോൾ അതിൽ വ്യത്യാസം വരുത്തി എനിക്ക് എങ്ങനെ പാടാന്നൊക്കെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ ഒരുപാട് തവണ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതെനിക്ക് സഹായകരമാവുന്നുണ്ട് എന്താണ് എന്റെ എൻ്റെ പിച്ച് എന്താണ് ആ വേറൊരു പാട്ടിൽ വരുന്ന പിച്ചിൽ വരുന്ന വ്യത്യാസം എങ്ങനെയാണ് എനിക്ക് എങ്ങനെ ആ പിച്ചിൽ പാടാം എന്നൊക്കെ സഹായിക്കുന്നുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തേന് ശേഷം ഞാൻ ചിലപ്പോൾ ചില സമയങ്ങളിൽ കരോക്കെ ഇട്ട് പാടാറുണ്ട് ഒരു സിനിമ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതെനിക്ക് പാടാൻ പറ്റുവോന്നറിയാൻ വേണ്ടി ഞാൻ കരോക്കെ ഇട്ട് കേൾക്കാറുണ്ട് അപ്പോൾ കരോക്കേടെ കൂടെ പാടുമ്പോൾ എനിക്ക് ആ കരോക്കേലുള്ള പിച്ചും അതിൻ്റെ മ്യൂസിക്കിലെ പിച്ചും എൻ്റെ പിച്ചും തമ്മിൽ വ്യത്യാസം വരുന്നത് എനിക്കറിയാൻ പറ്റും അപ്പോൾ ഞാൻ കൂടുതൽ കൂടുതൽ അത് എൻ്റെ പിച്ച് മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതെന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ടും പാട്ടുകള് പഠിക്കുന്നത് പിന്നെ എൻ്റെ കയ്യിലൊരു കർണാടക സംഗീതത്തിൻ്റെ ബുക്കൊണ്ട് അതിൽ സ്വരങ്ങളുടെ സ്ഥാനങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ് തരുന്നുണ്ട് അങ്ങനെ അത് വെച്ചും ഞാൻ പഠിക്കുന്നുണ്ട് അപ്പോൾ സ് എൻ്റെ സ്വരസ്ഥാനങ്ങൾ ഞാൻ പറ ഞാൻ പാടുന്നതിൽ സ്വരസ്ഥാനങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതെനിക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് കാരണം ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നത് കൊണ്ടും പിന്നെ ഞാൻ പഠിക്കുന്ന എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞ് തരുന്നത് കൊണ്ടും